ഹലോ റിജാ ബ്രോക്കറല്ലേ കുറച്ച് സ്ഥലം വേണമായിരുന്നല്ലോ പത്തനംതിട്ടയിൽ ബസ്സ് സൗകര്യം വേണം ബസ് ബസ് റൂട്ട് വേണം പിന്നെ റോഡ് സൈഡായിരിക്കണം

അൻപത് സെൻ്റ് മതി

നിങ്ങളുടെ റേറ്റെന്താ ഒരു ഒരു സെൻൻറ്റിന് ഞങ്ങൾക്ക് പെര വെക്കാനായിട്ടാണ് റോഡ് സൈഡിൽ വേണം സ്കൂള് പള്ളി സൗകര്യം വേണം എല്ലാം വേണം ആ കുഴപ്പമില്ല ഞങ്ങൾക്ക് സൗകര്യം വേണം ഓ അതിച്ചിരി കൂടുതലല്ലേ ഞങ്ങൾ ഞങ്ങൾ അൻപത് രൂപയാണ് അൻപത് ലക്ഷം രൂപായാണ് ആ അൻപത് അൻപത്

അപ്പോൾ അൻപത് ലക്ഷത്തിലൊതുങ്ങുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടണം അത് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ കാണുകേലെ ആ നോക്കാൻ പരിശ്രമിച്ച് നോക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ വേണം സൗകര്യവാണ് അത്യാവശ്യം ആ ആലോചിച്ചിട്ട് വിളിക്കാം